ഇന്ത്യയിലെ മെയിൻ ഫെസ്റ്റിവെൽസ് ഏതൊക്കെയെന്നു വെച്ചാൽ ഒന്ന് വിഷു ഓണം ക്രിസ്മസ് പിന്നെ ദസറ ഉത്സവം പിന്നേ വാരണാസിയിലുള്ള ഒരിത് ഇതൊക്കെയാണ് ഇന്ത്യയിൽ മെയിനായിട്ടുള്ളത് ഇതെങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് വെച്ചാൽ വിഷുവെന്ന് പറഞ്ഞാൽ തലേദിവസം കുളിച്ചിട്ട് രാവിലെ കണിയും കണ്ടെണീറ്റ് പടക്കമൊക്കെ പൊട്ടിച്ച് കണിയും കണ്ടാണ് എണീക്കുക അതാണ് വിഷു പിന്നെ ഓണം അത്തപ്പൂക്കളമൊക്കെ റെഡിയാക്കി മാവേലിയെ വരവേറ്റാണ് ഓണം നമ്മളാഘോഷിക്കുക ക്രിസ്മസിന് ക്രിസ്മസ്സപ്പൂപ്പൻ വന്ന് എല്ലാവരുടെയും വീട്ടിലൊക്കെ വന്ന് ഇതൊക്കെയാണ് ആഘോഷിക്കുക ദസറയെന്ന് പറഞ്ഞാൽ വലിയ ലൈറ്റ്സും ഇങ്ങനത്തെ പരിപാടിയൊക്കെയായിട്ട് ആണ് ദസറ ആഘോഷിക്കുക വാരണാസിയിലെ പിന്നെയുള്ളത് നമ്മൾ ന്യൂയിയറൊക്കെയാണ് ന്യൂയിയറും നമ്മൾ ഇന്ത്യയിൽ അത്യാവശ്യം നല്ലോണം ആഘോഷിക്കുന്നൊരു പരിപാടിയാണ് ന്യൂ ഇയർ എന്നു പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കുശേഷം പടക്കമൊക്കെ പൊട്ടിച്ച് നമ്മളാഘോഷിക്കുന്നു